ഹലോ ഹോളിഡേ ഹിൽ റെസ്റ്റോറന്റ് അല്ലേ ഞാൻ വിളിച്ചത് ഞങ്ങൾക്ക് ഇന്ന് അവിടെ ഒരു മീറ്റിങ്ങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്യണമായിരുന്നു ആ അതെ ആ പത്തു പേർക്കിരിക്കാൻ പറ്റിയ ഒരു ടേബിള് ആ ഡിന്നർ സെറ്റ് ചെയ്യണം ആ ആ ആ ശരി എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഓ ആയിക്കോട്ടെ ആ ഒരു സെവൻ തേർട്ടി ആവുമ്പോഴേക്കും സെറ്റ് ചെയ്ത് വയ്ക്കണം അവൈലബിൾ ആണല്ലേ ആണല്ലേ ആ ഓക്കെ താങ്ക് യു